വാർ വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങള് യാഥാർത്ഥ്യവും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ള ചോദ്യത്തിന് പറയാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ചില ചെറിയ വാർത്തകളും വളരെ ഹൈ ഹൈലൈയ്റ്റ് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്ത രീതിയിലുള്ള വാർത്തകൾ ആയിരിക്കും പക്ഷേ എന്നാൽ തന്നെയാണെങ്കിലും മീഡിയാസിൻ്റെ റേറ്റിങ് കൂട്ടുന്നതിനുവേണ്ടി അവര് അവര് ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനു ഭയങ്കരമായ രീതിയിൽ എക്സാജെറേഷൻ ചെയ്തു കൊടുക്കാറുണ്ട് അത് ശരിക്കും ഒരു ആവശ്യമിലാത്ത ചില കാര്യങ്ങളാണ് എന്നാൽ കൊടുക്കണ്ട പ്രാധാന്യം കൊടുക്കണ്ട വാർത്തകൾക്കു പ്രാധാന്യം കൊടുത്തു തന്നെ മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത് അതിന് അതിൻറ്റേതായ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കുക വേണം പിന്നെ വ്യാജ വാർത്തകൾ കാ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം അത് വ്യാജവാർത്തകൾ ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാറുണ്ട് ഈ വരുന്ന രീതിയിലേക്കുള്ള വ്യാജ വാർത്തകൾ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന മെസ്സേജുകളാണ് കൊടുക്കുന്നത് ഒരിക്കലും ശരിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റായ ഒരു പ്രവണതയാണ് അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം